ബൈക്ക് ഓടിച്ചു തുടങ്ങുന്നവര്ക്ക് ഏറ്റവും സാധാരണമായിട്ട് സംഭവിക്കാറുള്ള ചെല തെറ്റുകള് എന്ന് പറയുന്നത് ആദ്യത്തത് സ്റ്റാന്ഡ് എടുക്കാത്തതാണ് കീ ഇട്ടു അപ്പ തന്നെ സ്റ്റാന്ഡ് സ്റ്റാൻഡ് എടുക്കാണ്ട് വണ്ടി ഓടിച്ചു പോയിട്ടുള്ളതാണ് ആദ്യത്തെ മിസ്റ്റേക്കില് വരുന്നവ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ മിററ് നോക്കാതെയുള്ള കട്ടിങ്ങാണ് അതും ഈ സര്വ സാധാരണമായിട്ട് കാണുന്നതാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇന്ഡിക്കേറ്റര് ഓഫാക്കാണ്ടോ അല്ല ഇന്ഡിക്കേറ്റര് ഇടാണ്ടോ ഇട്ട ഇന്ഡിക്കേറ്റര് ഓഫാക്കാന് മറക്കുക ഇങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്ക്സ് ആണ് വരുന്നുള്ളത് തെറ്റുകളാണ് വരുത്തുന്നത് ഇതിൽ തന്നെ ഇത് ഒഴിവാക്കാന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ കുറച്ചു നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹെല്മറ്റ് ഹെല്മറ്റ് ഇടാത പോകുന്നതാണ് കുറച്ചു ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് മറന്ന് വച്ചു പോകുന്ന ഇതെല്ലാം ഒഴിവാക്കാം അതേപോലെ ബൈക്ക് സ്റ്റാര്ട്ട് ചെയ്യുന്നത് സ്റ്റാര്ട്ട് ചെയ്യുന്നത് പാടെ തന്നെ സ്റ്റാന്ഡ് എടുക്കുക അങ്ങനെയുള്ള ഇത് അതേപോലെ തന്നെ ഇന്ഡിക്കേറ്ററ് ഇതെല്ലാം കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാല് അതിനനുസരിച്ച് ചെയ്യുക കര്ശനമായി മായിട്ട് പാലിക്കേണ്ടതാണ് ഒന്ന് ബൈക്ക് ഓടിക്കുമ്പം ഫോണ് യൂസ് ചെയ്യാതിരിക്കുക ഹെല്മറ്റ് ഇടുക പിന്നെ ഇങ്ങനെയുള്ള കുറച്ചു സംഭവങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കര്ശനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഓവര്ടേക്ക് ചെയ്യുമ്പോൾ മറ്റു വാഹനങ്ങള് പോലെയല്ല ബൈക്ക് ബാലന്സിങ്ങാണ് രണ്ടു ടയറിലാണ് ഇത് ഓടുന്നത് എന്നുള്ള ഒരു ധാരണ മെയിൻ വേണം ഇപ്പം മാക്സിമം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു എന്താണ് നമ്മൾ ആ ഈ ബൈക്ക് എന്ന് പറയുന്നത് ചില ആൾ കാണുന്നുണ്ട് ഈ സൗണ്ട് ആക്കി പോവുക അല്ലെങ്കില് ഇങ്ങനെ ഫ്രണ്ട് വീല് പൊക്കി പോവുക ബാക്ക് വീല് പൊക്കി പോവുക ഇതിനൊന്നും നിൽക്കാണ്ട് ഇതിന്റെ ശരിയായ ഉപയോഗം മനസിലാക്കി യൂസ് ചെയ്യുക എന്നുള്ളതാണ് കര്ശനമായിട്ടും ചെയ്യേണ്ടത് കാരണം ചെറിയ ഒരു ആ ചെറിയ ഒരു കല്ല് മതി ഒരു എന്താണ് പറയേണ്ടത് ഒരു ജീവിതം ഇല്ലാണ്ടാക്കാന് അപ്പം അത്രയും ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അങ്ങനെ ശ്രദ്ധിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ ഈ തെറ്റുകളെല്ലാം ഈ നിയമങ്ങളെല്ലാം പാലിച്ചു കൊണ്ട് പോവുക ഹെല്മറ്റ് യൂസ് ചെയ്യുക കറക്റ്റ് പ്രോപ്പറായി വണ്ടി ഓടിക്കാത്തത് കാരണം ലെഫ്റ്റ് സൈഡ് എടുക്കാതിരിക്കുക ട്രാഫിക്കിൽ കറക്റ്റ് സിഗ്നല് ശ്രദ്ധിക്കാതെ നമുക്ക് അറിയാം നമ്മുടെ നാട്ടിലെ ഇപ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ് ഇത് ബൈക്കുകാർ ഓടിക്കുന്നത് ലെഫ്റ്റ് സൈഡ് പോകാറില്ല റൈറ്റ് സൈഡ് പോവില്ല ചില സമയത്ത് സെൻ്ററിൽ വച്ചു പോവും മെയിന് അതാണ് ഈ അപകടങ്ങള് വരാന് കാരണം മെയിന് അതാണ് ബൈക്കുകാർ എപ്പോഴും പോകുന്നത് സെൻട്ര് പിടിച്ചിട്ടാണ് ആ സൈഡോ ഈ സൈഡോ ആയിട്ട് പോവില്ല പിന്നെ ഈ വളവിൽ എത്തുമ്പം ഓവർടേക്കിങ്ങ് വളവിൽ എത്തുമ്പോഴായിരിക്കും മാക്സിമം ഓവർടേക്കിങ്ങ് പിന്നെ ഇതെല്ലാം കോമണായിട്ട് ഉള്ളതാണ് ഇതെല്ലാം ഇതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ ചെറിയ സ്പീഡിൽ പോവുക മാക്സിമം നമ്മുടെ ആവശ്യം പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള വണ്ടിക്കാരെ പരിഗണിക്കാതെ പോവുമ്പോഴാന്ന് പിന്നെയും കൂടുതൽ ഈ ബൈക്കുകാർ രക്ഷപ്പെടും ബാക്കിൽ വരുന്നവര്ക്കാണ് ഈ പണി കാരണം അവരവരുടെ ആവശ്യത്തിനാണ് അവർ പോകുന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഈ പറയുന്ന അത്ര നിസാരമുള്ള കാര്യമല്ല നല്ല നല്ല ഒരു എന്താണ് പറയുന്നത് ഇനിയുള്ളൊരു ബോധവൽകരണം വരണ്ട കാലം അതിക്രമിച്ചു ഈ ലൈസന്സ് എടുക്കാന് പോകുമ്പോഴുള്ള പത്ത് മിനിറ്റ് ക്ലാസ് വല്ല ലൈസെൻസ് മറ്റേ കമ്പ്യൂട്ടറൈസ്ഡ് ചിലപ്പം ക്വസ്റ്റ്യൻ എല്ലാം ഇത് ചെറുപ്പം മുതൽ പറഞ്ഞു മനസിലാക്കി കൊടുക്കേണ്ടതാണ് കാരണം നല്ല ഒരു ബോധവല്ക്കരണം ഇതിൻ്റെ ബാക്കിൽ ആവശ്യമുണ്ട് അപ്പോൾ ട്രാഫിക്ക് പോലീസായാലും മറ്റുള്ള സംഘടനകളായാലും പൊതുപ്രവര്ത്തകരായാലും എല്ലാം നല്ല രീതിയിൽ ഇതിനെ പറ്റി ബോധവൽക്കരണം ചെയ്താലേ നമ്മളെ നാട്ടിൽ ഇനി ബൈക്ക് ഓടിക്കാൻ പറ്റൂ അല്ല എന്നുണ്ടെങ്കിൽ ആക്സിഡന്സ് കൂടും മറ്റുള്ള ആക്സിഡൻസിനേക്കാളും കൂടുതൽ ആള്ക്കാർ മരിക്കുന്നത് ബൈക്ക് ആക്സിഡന്റിലാണ് കാരണം സിമ്പിളാണ് അശ്രദ്ധ കാരണം മാത്രമാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം പാലിക്കേണ്ട നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ തന്നെ പറയും ഇങ്ങനെയൊക്കെ ആണ് വണ്ടി ഓടിക്കണ്ടതെന്ന് പക്ഷെ ആ ഒരു നിയമം പോലും ആരും പാലിക്കാറില്ല ഹെല്മറ്റിന്റെ കാര്യം തന്നെ എടുത്താൽ ഏറ്റവും വില കുറഞ്ഞ ലോക്കൽ സാധനം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അതുതന്നെ എത്ര ചീപ്പിൽ കിട്ടും എന്ന് നോക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്സിമം അതിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം യൂസ് ചെയ്താൽ നമ്മളെ എന്താണ് തല രക്ഷപ്പെടും പിന്നെ അതിൽ തന്നെ ഇപ്പം വരുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബൈക്കിനെ കുറിച്ച് പറയാനാണെങ്കില് അത് ഓടിക്കുന്നവരെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഇന്ന് പുറമേ റോഡ്സ് റോട്ടിലേക്ക് ഇറങ്ങുമ്പം തന്നെ നമുക്ക് മനസിലാവും ഒരു വഴിയില് വെറുതെ നടന്നു പോകുന്ന ആൾക്കാർക്കു വരെ ബുദ്ധിമുട്ടിച്ചേ പോകാറുള്ളൂ കാരണം മനപ്പൂർവ്വം അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതൊരു അശ്രദ്ധ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ചില ചി ല മാറ്റങ്ങൾ ഇതാണ് കുറേ ആൾ ബുദ്ധിമുട്ടിക്കാനായിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട് കാരണം ഒരു ബ്ലോക്ക് ഉണ്ടായാൽ അതിന്റെ ഗ്യാപ്പിലൂടെ എടുത്തു കൊണ്ട് പോവുക അല്ലെങ്കിൽ ഇതേപോലെ സെന്ററായേ പിടിച്ച് ഓടുക ഫ്രണ്ട് വീലും ബാക്ക് വീലും എല്ലാം പൊക്കി പൊക്കി അല്ലെങ്കില് സൗണ്ട് ആക്കി ഇങ്ങനെ ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പേരുണ്ട് ആക്ച്വലി ഞാനും ഒരു ബൈക്ക് ഓടിക്കുന്ന ആളാണ് അപ്പം നമുക്കറിയാം എങ്ങനെയെല്ലാമാണ് എങ്ങനെയെല്ലാം സുരക്ഷിതമായിട്ട് നമ്മളെ ലക്ഷ്യ സ്ഥാനത്ത് എത്തണം എന്ന് മനസിലാക്കണം ആദ്യം കഴിയുന്നതും ഒരു നാല്പത് അറുപത് അതിന്റെ ആ സ്പീഡിൽ മാത്രം പോവുക കാരണം ഒരുപാട് സ്പീഡിൽ പോയാൽ ചിലപ്പോൾ നമുക്കിത് കണ്ട്രോള് ചെയ്യാന് പറ്റണം എന്നില്ല അതായത് ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം വലിയ വലിയ സി സി കൂടിയ വണ്ടിയാണ് വലിയ വലിയ സി സി അതിന്റെ ഒന്നും ആവശ്യം നമ്മളെ റോഡിൽ ഇല്ലാ നമ്മളെ റോഡിനു അനുസരിച്ചിട്ടുള്ള ഇത് മാത്രമേ ഇറക്കാന് ശ്രമിക്കാന് പാടുള്ളൂ പക്ഷെ ഗവണ്മെൻ്റ് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നില്ല ഈ വലിയ സി സി കൂടിയ വണ്ടി അല്ലെങ്കില് വലിയ വിലന്റെ വണ്ടി വാങ്ങി എന്ന് പറഞ്ഞിട്ട് അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അമ്മാതിരി സ്പീഡില് പോയാലേ അതിന്റെ ആ ഒരു റൈഡ് ആസ്വദിക്കാന് പറ്റൂ പക്ഷെ നമ്മുടെ റോഡും അതിന്റെ സാഹചര്യവും അതുപോലെ അല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ബൈക്ക് വാങ്ങാതിരിക്കുന്നതാണ് ബെറ്ററ് അതേപോലെ അറുപത് സ്പീഡ് മതി മാക്സിമം സ്പീഡ് നമുക്ക് നമ്മളെ ടൗണിൽ അറുപത് സ്പീഡ് മതി പക്ഷെ വണ്ടിക്കെല്ലാം നൂറും നൂറ്റിയിരുപതും സ്പീഡാണ് കൊടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് ഇതു വരെ പിടി കിട്ടിയില്ല അതുപോലെ നല്ല റോഡിലൂടെ ഈ നൂറോ നൂറ്റി ഇരുപതോ സ്പീഡില് പോയാൽ തന്നെ അവിടെ ക്യാമറ വച്ചിട്ടുണ്ടാവും ആ ക്യാമറയില് പെട്ട് നമ്മൾ വീണ്ടും ഫൈൻ അടക്കണം അപ്പം ഇങ്ങനെയുള്ള കുറേ തെറ്റുകളെല്ലാം അവരേ ഭാഗത്ത് നിന്നും ഉള്ളതാണ് ബൈക്ക് ഓടിച്ചു തുടങ്ങുന്നവർ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയില് നിയമങ്ങൾ അറിയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ അറിയാത്ത നിയമങ്ങള് പഠിച്ച് ആ നിയമങ്ങളെയെല്ലാം പാലിച്ച് നല്ല രീതിയിൽ പോവുക എന്നതാണ് ഇതെല്ലാം സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യം ഒന്നും ഇല്ല എല്ലാവർക്കും അറിയാം എല്ലാവരും അതുപോലെ ചെയ്താൽ മതി